നീണ്ട യാത്രയ്ക്കായി ഞാൻ തയ്യാറെടുക്കുമ്പോൾ കൊണ്ടുപോകുന്ന സാധനങ്ങൾ എന്നു പറയുന്നത് മൊബൈൽ ഫോണ് ചാർജെറ് പിന്നെ മഴ വന്നാൽ ഇടാനുള്ള മഴക്കോട്ട് ഹെൽമെറ്റ് പിന്നെ എന്തെങ്കിലും ഒരു ചെറിയ കത്തി ഒരു ലാംബ് പിന്നേ കുടിക്കാൻ കുറച്ച് വെള്ളം കുറച്ച് സ്നാക്സ് പിന്നെ പെട്രോള് തീർന്നാൽ ഉപയോഗിക്കാൻ വേണ്ടി കുറച്ച് പെട്രോള് എന്നീ സാധനങ്ങളൊക്കെയാണ് ഞാൻ യാത്രയ്ക്ക് കൊണ്ടുപോകുന്നത്